ഹലോ സെഞ്ചുറി ഫാഷന് സിറ്റി അല്ലേ അപ്പോൾ എന്റെ എല്ലാവർക്കും കൂടെ നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ ഒരു ആറുപേരുണ്ടാവും ആ കുട്ടികള് ഉണ്ട് രണ്ടു പേരുണ്ട് ഒരു ആണ്കുട്ടിയും ഒരു പെണ്കുട്ടിയും ഉണ്ട് ആ ആറു പേര്ക്കുള്ളതും അവിടുന്നുതന്നെയാണ് എടുക്കുന്നത് ഓണത്തിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഉണ്ട് അല്ലേ ഓക്കേ അപ്പം എല്ലാവർക്കുമുള്ള ഡ്രസ്സ് അവിടെ ഉണ്ടാവില്ലേ അവൈലബിൾ ആണല്ലേ ഓക്കേ ഓക്കേ എത്ര മണി വരെ ഉണ്ടാകും ഷോപ്പ് ഒമ്പ ഒൻപതര വരെ അല്ലേ ഓക്കേ അപ്പോൾ ചെറിയ കുട്ടികളുടെ തൊട്ട് വലിയ ആള്ക്കാരുടെ വരെയുണ്ടല്ലേ ഉണ്ട് അല്ലേ ഓക്കേ ഓക്കേ നമുക്ക് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡല് പിള്ളേര്ക്കും ഭാര്യയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡല് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അച്ഛനും അമ്മയും ഉണ്ട് അപ്പോൾ അവര്ക്ക് കുറച്ച് നാടന് ഡ്രെസ്സും കാര്യങ്ങളൊക്കെ അതായത്

ആ ഓക്കേ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് പിള്ളേര്ക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവർ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പം അവിടെ ഉണ്ടാവുമല്ലോ എന്നറിയാന് വേണ്ടി ഞാന് വിളിച്ച് നോക്കിയതാണ് ഇല്ലാണ്ട് നമ്മള് വന്നിട്ട് കാര്യമില്ലല്ലോ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് നാളെ വന്നാൽ മതിയോ ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കില് നാളെ ഞാൻ ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഞാന് വരാം എന്നാല് ഓക്കേ ഓക്കേ ഓക്കേ